ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതല് കളിച്ചു വരുന്ന ഗെയിമ് ക്രിക്കറ്റാണ് ഇതില് അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് രണ്ടും മൂന്നും ടീമുകളായിട്ട് തിരിക്കാറുണ്ട് ഇതില് ഓരോ നിയമങ്ങളുണ്ട് അതായത് വൈഡ് വൈഡും ഫോറിൻ്റെ അതിവ്യത്തിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒത്തിരിയുണ്ട് ഇവിടുള്ള ചില കളികളുടെ ഇടയില് ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമാണെലും പാലിക്കാറില്ല പാലിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനായിട്ട് ആദ്യം തർക്കിക്കും തർക്കിച്ചിട്ട് അവരെ സ്കോറ് കൂട്ടുവാണെങ്കിൽ അത് നമ്മള് നിർത്തും പിന്നീട് വീണ്ടും നമ്മൾ ആ ഗെയിം തുടങ്ങും ഓരോ ആൾക്കാർക്ക് ഓരോ നിയമങ്ങള് വെച്ചൊന്നുയില്ല ഒറ്റ നിയമമേ ഉള്ളൂ ആ നിയമമനുസരിച്ച് നമ്മൾ തുടരും പിന്നെ ഒത്തൊരുമയോടുകൂടിയാണ് ഇവിടെല്ലാരും കളിക്കുക നിയമലംഘനം അങ്ങനെ എപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ല ഉണ്ടാകുവാണെങ്കിലും നമ്മൾ അതിനായിട്ടുള്ള നമ്മുടെ ക്യാപ്റ്റൻമാരിൽ ക്യാപ്റ്റൻമാരിൽ കാണും അത് ടീമ് വിളിച്ചെടുത്ത ആള് കാണും അവരായിട്ട് എല്ലാരുവായിട്ട് സംസാരിച്ച് ഒത്ത് തീർപ്പാക്കാനാണ് മാക്സിമം നോക്കുകയുള്ളു പിന്നീട് ക്രിക്കറ്റിൻ്റെ ഓരോ ചെറിയ ക്രിക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ശ്രദ്ധിച്ചിരിക്കേണ്ട ഇതുതന്നാണ് കാരണം ചെറിയൊരു വ്യത്യാസത്തില് ഫോർ അതിർത്തിയുടെ അപ്പുറത്തോ ഇപ്പുറത്തോ പോയെങ്കിലും ബാറ്റിംഗ് ടീമ് ഫോറാ ഫോറ് വേണം എന്ന് പറഞ്ഞ് തർക്കിക്കും അത് ചിലപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ബോളിംഗ് ഫീൽഡിങ് ടീമാണെങ്കിൽ അത് തർക്കിച്ചില്ലെങ്കിൽ ആ ഫോറവർക്ക് തന്നെ കിട്ടണ്ട അവസരം ഉണ്ടാകും അതിൽ നിന്ന് മാറ്റം വന്നു നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ നേരത്ത് എല്ലാം നല്ല രീതിയി നോക്കിയും കണ്ടോക്കെയാണ് കളിക്കാറുള്ളത് പിന്നീട് എല്ലാവരുടെയും ഇഷ്ടം അനുസരിച്ച് ഓരോ ഓവറുകൾ പലതായിട്ട് തിരിക്കാറുണ്ട് നമ്മള് സന്ധ്യയായിട്ട് അടുക്കാറാകുമ്പോൾ ഓവറുകളുടെ എണ്ണം കുറച്ച് നമ്മൾ ഓൾറെഡി കളിക്കുന്നത് നാല് ഓവറിനാണ് നാല് ഓവർ കഴിഞ്ഞ് നമ്മൾ ഇരുട്ടും തോറും അത് മൂന്നോവറും രണ്ട് ഓവറായിട്ട് തിരിക്കും അപ്പോൾ ഈ രണ്ട് ഓവർ ആകുന്ന ടൈമിലൊക്കെയാണ് ഈ നിയമത്തിൻ്റെ പ്രശ്നം ഏറ്റവും കൂടുതല് കടന്നുവരുന്നത് കാരണം നിയമം ഈ രണ്ട് ഓവറിൽ കളിക്കുമ്പോൾ വാശി ഏറെയാണ് വാശിയേറെയാകുമ്പോൾ നമ്മള് അതിനായിട്ട് ശ്രദ്ധിച്ചൊക്കെ നിൽക്കണം ഈ രണ്ടോവറില് ഏറ്റവും കൂടുതല് ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമില് തെറ്റുണ്ടെങ്കിലും ഉദാ ഒര് ഒരുപക്ഷേ ആ ടീമ് അങ്ങ് തർക്കിച്ചുകൊണ്ടിരിക്കും കാരണം ലാസ്റ്റത്തെ കളിയിലിപ്പോൾ വിജയത്തിൻ്റെ അടിസ്ഥാനം ഇപ്പം ഒരു നാല് കളി കളിച്ചു എന്ന് കരുതുക ഒരു ടീമ് മൂന്നു കളി ജയിച്ചു ഒരു ടീം ഒരു കളിയെ ജയിച്ചുള്ളൂ അതില് മറ്റേ കളി അതായത് കളിക്കുന്ന മൂന്നാമത്തെ കളി ഒരുപക്ഷേ ആ ഈ ബാറ്റിംഗ് ടീമിൻ്റെ ഭാഗത്ത് ശരിയല്ലെങ്കിലും അവര് തർക്കിച്ച് തർക്കിച്ച് ആ കളി ജയിക്കാനായിട്ട് മാക്സിമം നോക്കും പക്ഷേ നമ്മുടെ നിയമങ്ങളനുസരിച്ച് അത് പെട്ടെന്ന് തന്നെ തീർക്കും പെട്ടെന്ന് തന്നെ അതിന് നമ്മൾ ഒത്തുതീർപ്പാക്കും എല്ലാവരും ഒത്തൊരുമയോടെയാണ് കളിക്കുന്നത്